മലയാള ഭാഷയിൽ വികാസം വന്നോ എന്ന രീതിയിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന രീതിയല്ല ഇപ്പോൾ പണ്ട് നമുക്ക് കൂടുതൽ കട്ടിയായിട്ടുള്ള ഭാഷ അതാണ് പഠിച്ചിട്ട് ഉണ്ടായിരുന്നത് ഭാഷയെ ആഴ്ന്ന് ഇറങ്ങി പഠിക്കുക എന്നുള്ളൊരു സംവിധാനം ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവണില്ല ഇപ്പോൾ മലയാള ഭാഷ പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആദ്യം പണ്ടൊക്കെയെന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇപ്പോൾ എന്താ പറയുക വ്യാകരണം അത് പോലെ പദപ്രേയോഗങ്ങൾ പിന്നെ അതിൻ്റെ ഓരോ ഓരോ കുറെ കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ ഗ്രാമറ് പോലത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല നമ്മൾ ആദ്യം അക്ഷങ്ങൾ പഠിക്കുന്നു പിന്നെ അതിൻ്റെ വായിക്കാൻ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇന്നത്തെ ഭാഷ ഭാഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭാഷ പൂർണ്ണമായിട്ടും മലയാള ഭാഷയെ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പണ്ടുള്ളവർക്ക് ഒരു പണ്ടുള്ളത്ര കവിതകളും കല ഇതൊന്നും ഇപ്പോൾ മലയാള ഭാഷയ്ക്ക് ലഭിക്കാത്തതിൻ്റെ കാരണവും അതുതന്നെയാണ് നമ്മൾ പൂർണ്ണമായും മലയാള ഭാഷയെ മനസ്സിലാക്കാനോ അതിനെ ഉൾകൊള്ളാനോ ഇപ്പോഴത്തെ സമൂഹത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവസരം ലഭിക്കുന്നില്ല എന്താണോ സംസാരിക്കുക അല്ലെങ്കിൽ എഴുതുവാനോ അങ്ങനെ ഭാഷയുടെ അടിസ്ഥാനം മാത്രമാണ് നമുക്ക് ഇപ്പോൾ എവിടെനിന്നാണ് സ്കൂള് ആയാലും കോളേജുകൾ ആയാലും നമുക്ക് അവിടെനിന്ന് പകർന്ന് നൽകുന്നു മുമ്പെന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിലേക്ക് ആഴ്ന്ന് ഇറങ്ങി അതിൻ്റെ കുറെ അധികം കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെ മനസ്സിലാക്കി അതിൻ്റെ വിവർത്തനം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം ലഭിക്കുന്നില്ല